എനിക്ക് സന്ദർശിക്കാൻ ഏറെ ഇഷ്ടമുള്ള സ്ഥലങ്ങൾ ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതായത് അമ്പലങ്ങൾ അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അതായത് ദൂര യാത്ര ചെയ്തിട്ട് ഗുരുവായൂർ അതേപോലെ പിന്നെ ചോറ്റാനിക്കര അങ്ങനെയുള്ള അമ്പലങ്ങൾ സന്ദർ സന്ദർശിക്കാനൊക്കെ ഇഷ്ടമാണ് പിന്നെ പണ്ടത്തെക്കാലത്തൊക്കെ ഞാൻ ശബരിമലയിലൊക്കെ പോയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഒരു പ്രാവശ്യമല്ലേ പോകാൻ പറ്റുകയുള്ളു പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ക്രിസ്ത്യാനി പള്ളികൾ അങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെ മൃഗങ്ങളെ ഒരുപാട് മൃഗങ്ങളെ കാണാൻ സൂവിൽ കാര്യങ്ങളിലൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വ്യത്യസ്ത മൃഗങ്ങളെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും നമ്മൾ കാണാത്ത മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റും അതേപോലെ പാമ്പ് അങ്ങനെയുള്ള പല പല മൃഗങ്ങളും ഉണ്ടാകും അപ്പം അതിനെയൊക്കെ കാണാനും അതായത് പല തരമുള്ള കിളികൾ മീൻ അങ്ങനെയുള്ള പല ഇത് ഉണ്ടാകുമല്ലോ അപ്പം അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് പിന്നെ അതായത് ഈ മഞ്ഞ് മൂടിയ സലങ്ങളൾ അങ്ങനെയുള്ള അതായത് രാവിലെയൊക്കെ നമ്മൾ പോയി കാണുന്ന അങ്ങനെയുള്ള സ്ഥലങ്ങൾ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്